ഹലോ ആ ഞാൻ നേരത്തെ ആ പറഞ്ഞിരുന്നതു പോലെ ഞങ്ങൾ പുതിയ താമസം മാറുന്ന സ്ഥലത്തെ എൻ്റെ മേൽവിലാസവും എൻ്റെ മെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു നമുക്ക് അവിടോട്ട് കണക്ഷൻ വെക്കുന്നതിനു വേണ്ടിയിട്ട് ആ അതൊരു വെബ് സൈറ്റിൽ കയറി ഒന്ന് അപ്ലോഡ് ചെയ്തു തന്നാൽ മതി അപ്പോൾ എൻ്റെ പുതിയ വിലാസം ഒന്ന് നോട്ട് ചെയ്തോളൂ ലക്ഷ്മി നിവാസ് കരുവാറ്റ പി ഓ കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ ആറ് ഒൻപത് പൂജ്യം അഞ്ച് ഒന്ന് ഏഴ് ആ കോൺടാക്ട് നമ്പർ നയൻ എയിറ്റ് വൺ സീറോ ടു ത്രീ എയിറ്റ് വൺ നയൻ സീറോ വൺ

ഇമെയിൽ ഐ ഡി ലക്ഷ്മി സീറോ സിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഒന്ന് അപ്ലോഡ് ചെയ്തേക്കുമോ ഓക്കേ നന്ദി